ലൈബ്രറി അല്ലേ ഞാനേ ഞാൻ ഒരു ബുക്ക് എടുത്തുകൊണ്ട് പോന്നായിരുന്നു അവിടെ നിന്ന് അപ്പം അത് തരാൻ ഇച്ചിരി താമസം വന്നു അതിന് എന്നാ ചെയ്യണ്ടേ ഞങ്ങൾ ബുക്ക് ഞാൻ ബുക്ക് എടുത്തിട്ട് ഒരു മാസം ഒരു മാസം കഴിഞ്ഞു ഒരു ഒരു ഒരു കഥ പുസ്തകമായിരുന്നു എടുത്തത് കഥ കഥ

ഇല്ല എട്ട് ദിവസത്തിനുള്ളിൽ തരണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പം അത് ഒരു മാസമായി ആ ആ ഫൈൻ അടയ്ക്കണോ ഒരു വിട്ട് വീഴ്ച്ചയൊക്കെ ചെയ്യാൻ മേലെ ഞാൻ അത് എനിക്ക് ഒരു ആ അത് എങ്ങാനും അത് ഇനി ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു അത് അതൊരു ഒരു അത്യാവശ്യം കാര്യം വന്നുകൊണ്ട് അത് കൊണ്ട് തരാൻ പറ്റാതെ പോയത് അത് വിളിച്ചു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയി പോയി പക്ഷേ നിങ്ങളുടെ ലൈബ്രറിയുടെ നമ്പർ എൻ്റെ കൈയിൽ ഇല്ലായിരുന്നു അങ്ങനെ അല്ല അത് വേറെ ഒരു കൊച്ച് എടുത്തു കൊണ്ട് പോയി അത് വായിക്കാൻ കൊണ്ടു പോയി അത് എന്നിട്ട് അത് തിരിച്ചു കൊണ്ട് തരാനുള്ള താമസം ഒക്കെ വന്നതാണ് അത് പറ്റിപ്പോയത് കംപ്ലയിൻറ്റുകളൊന്നും വരുത്തി വച്ചിട്ടൊന്നു ഇല്ല വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ കണ്ടു ബോധ്യപ്പെട്ടിട്ട് മതി എന്തെങ്കിലും അതിൽ കൂടുതൽ തുക അടയ്ക്കണമെങ്കിൽ ഞാൻ ചെയ്തോളാം പക്ഷെ ഒരു കംപ്ലയിന്തുകളൊന്നും ഇല്ല ഈ ഫൈൻ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കാമോ മ്മ് ആ പിന്നെ കൊണ്ടുവന്നേക്കാം ശരി അല്ല